പണ്ടൊക്കെ കൈയൊക്കെ ഒടിഞ്ഞാൽ കമ്പുകളൊക്കെ വച്ചു കെട്ടിയും കുഴമ്പുകളൊക്കെ ഇട്ടും അങ്ങനെ ചികിത്സ നടത്തുകയായിരുന്നു ഇപ്പോഴത്തെ കാലം പുരോഗമിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു പ്ലാസ്റ്ററിട്ട് ചികിത്സയൊക്കെ നടത്തുന്നത് അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തു നോക്കും പിന്നെ അനാവശ്യമായ മരുന്നുകൾ എല്ലാ നേഴ്സുമാരും ഡോക്ടർമാരും പരിചരിക്കും എത്രയും വേഗമെന്ന് വളരെ രോഗ വിമുക്തമാകും പണ്ടൊക്കെ ഒരുപാട് കാലം ഇങ്ങനെ വച്ചു കെട്ടികൊണ്ട് നടക്കുകയും സീരിയസ് പല പച്ചമരുന്നുകളെല്ലാം വച്ചു കെട്ടി ചികിത്സ നടത്തുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ അതിന് ഇപ്പം അതിനെല്ലാം മൂലം വലുതായി മാറ്റം വന്നു എത്രയും വേഗം കൈ സുഖം സുഖപെടുത്താനും ഒക്കെ സാധിക്കുന്നു ഇപ്പോൾ എല്ലാത്തിലും മാറ്റം വന്നു കൊണ്ടിരിക്കുകയാണ് ചികിൽസയിലൊക്കെ വളരെ വിദഗ്ത രീതിയിൽ ചികിൽസിക്കാനും രോഗം വിമുക്തമാക്കാനും ഒക്കെ കഴിയുന്നുണ്ട് എത്രയും വേഗമെന്ന് പെട്ടെന്ന് സുഖപ്പെടുത്തുവാനും സാധിക്കും കാലത്തിൻ്റെ മാറ്റം അനുസരിച്ചു ഒരുപാട് ചികിൽസക്കും ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തെങ്കിലും അത് പെട്ടെന്ന് കണ്ടുപിടിക്കുവാനും എന്താണ് അത് മനസ്സിലാക്കാനുമുള്ള ആധുനിക ഉപകരണങ്ങളെല്ലാം ഇപ്പം നിലവിലുണ്ട് അതെല്ലാം ഉപയോഗിച്ചു ചികിൽസ അത്രയും ചികിൽസ നന്നായി പോകുന്നത് സാധിക്കുന്നുണ്ട് ഇങ്ങനെ പഴയതിനേക്കാളും എല്ലാം മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം അതിൻ്റെ സാങ്കേതിക വിദ്യകളെല്ലാം ഇപ്പോഴും ഉണ്ട് അതിലെല്ലാം കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നുണ്ട്